ഇത് ക്ലാരമ്മയല്ലേ എടാ എടാ നമ്മൾ പണ്ട് നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നത് ലൗലു മോളാടാ എനിക്ക് ഇച്ചിരി സ്ഥലം വേണമായിരുന്നു കോട്ടയത്ത്

അതെയതെ എൻ്റെ കോച്ചിൻറ്റെ കൂടെ ഞാൻ യു കെക്കു പോയിരിക്കുകയിരുന്നു ഇപ്പം കൊച്ചിന് ഇച്ചിരി സ്ഥലം വേണമെന്നു പറഞ്ഞത് അതു കൊണ്ടേ ഞങ്ങൾ ഈ മാസം അവസാനം എത്തും എന്നപ്പോൾ എനിക്ക് കോട്ടയം ടൗണിലാണ് ആ മെഡിക്കൽ കോളേജിനോടു ചേർന്ന് എനിക്ക് ഇച്ചിരി ഒരു ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം മതി എന്നാൽ വിലയായിരിക്കും ആ അതിരമ്പുഴ അതിരമ്പുഴയൊക്കെ ഇച്ചിരിങ്ങോട്ട് ദൂരമല്ലേ കോട്ടയത്തോട്ട് ഇച്ചിരിയങ്ങോട്ട് മാ അടുത്ത് ആ എന്നാൽ യൂണിവേഴ്സിറ്റി അടുത്താണെ മതി സ്ഥലത്തിന് എന്നാ വിലയാണ് ആണോ ആ എന്നാ ഒരു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം വേണം എനിക്ക് വെള്ളം കിട്ടുമോ വെള്ളവും കരണ്ട് ഒക്കെ വേണം വഴി ഉണ്ടല്ലോ ആണോ എന്നാ സ്ഥലത്തിന് എന്നാ വില വീഴും ആണോ ഇച്ചിരി കുറയുമോ അതിനേക്കാളും ആ സ്ഥലത്തിന് വല്ല തെങ്ങോ പ്ലാവോ ഓക്കോ വല്ലതും ഉണ്ടോ

വെള്ളം വറ്റത്തില്ലല്ലോ പിന്നെ നമ്മൾ കറണ്ട് എടുക്കാൻ പോസ്റ്റൊക്കെ അടുത്തുണ്ടല്ലോ അല്ലേ ആ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് പണിയാനാണ് കൊച്ചു യു കെയിൽ നിന്നു വരുമ്പോൾ കൊച്ചിന് ടൗൺ ഏരിയ കോട്ടയം ടൗൺ ഏരിയയിലോട്ടു പോകണം മാറി താമസിക്കണമെന്ന് ആ എന്നായിപ്പം അവളെ അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത് അങ്ങ് ദൂരെയാണേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം വന്നും പോയി അവരുടെയടുത്ത് നിൽക്കണമെങ്കിൽ അങ്ങ് ദൂരെ പോ പറ്റത്തില്ലല്ലോ കട്ടപ്പനയല്ലേ കെട്ടിച്ചത് അതുകൊണ്ട് ഇപ്പോൾ അവിടോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതു കൊണ്ട് കോട്ടയത്താണെങ്കിൽ ഞങ്ങൾക്കു പോയി അന്വേഷിക്കൊക്കെ ചെയ്യാമല്ലോ അതിനു വേണ്ടിയാണ്

ആ പക്ഷേ ഇച്ചിരി വില കുറയ്ക്കാൻ പറയണേ അതെ ആ യു കെയിലാണ് പറഞ്ഞിട്ട് കാര്യമുണ്ട് പിന്നെയും ജീവിക്കേണ്ട അങ്ങോട്ട് മുന്നോട്ട് സ്ഥലം തന്നെ മേടിച്ചാൽ പറ്റില്ല വീട് വെക്കണം പിന്നെ പിള്ളേരെ പഠിപ്പിക്കണം കൊച്ചിന് രണ്ട് ആൺപിള്ളേരാണ് അപ്പോൾ അതുങ്ങളെ പഠിപ്പിക്കണ്ടേ ഞങ്ങൾ ഡിസംബർ അവസാനം വരും മോളും ഞങ്ങളും ഞാൻ കൊച്ചിൻ്റെ പ്രസവത്തിന് പ്രസവ എടുക്കാൻ പോയിരിക്കാമായിരുന്നു ആ രണ്ടാമത്തെ കൊച്ചിൻ്റെ ആ ആ അ എടാ എൻ്റെ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ മാമോദിസയാണ് കൊച്ചു വരണം കേട്ടോ അതിനും കൂടി ഞാൻ വിളിക്കുകയാണ് എന്നാൽ ശരി ഓക്കെ